ഗ്രാമ പ്രദേശങ്ങളേക്കാളും കൂടുതലുള്ള കൂടുതൽ രോഗങ്ങളുള്ളത് നഗര പ്രദേശങ്ങളിലാണ് അവിടെയാണ് നമുക്ക് മാലിന്യങ്ങളൊക്കെ കൂട്ടിയിടുന്നതായിട്ടും അതേപോലെ മാലിന്യങ്ങളൊക്കെ റോഡ്സൈഡിലും മറ്റും നിക്ഷേപിച്ച് പോകുന്നതായിട്ട് കാണപ്പെടാറുള്ളതാണ് അതിൽ വെള്ളം കെട്ടി നിൽക്കാറും മഴ പെയ്യുമ്പോൾ അവിടെ മലിനമാകാനും അതിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള അസുഖങ്ങൾ വരാനും മറ്റു കരണങ്ങളാകുന്നു അസുഖങ്ങൾ പോൽ കൊതുകുകൾ കടിച്ചുള്ള അസുഖങ്ങൾ മാത്രമല്ല പല അസുഖങ്ങളും ഈ മലിനീകരണം മൂലം ഉണ്ടാകാറുണ്ട് അതേപോലെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ അത് അങ്ങനെ കാണാറില്ല പൊതുവെ അതിനുള്ള ആരോഗ്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെ ആളുകൾക്കുണ്ട് ഒന്ന് പിന്നെ വായുമലിനീകരണം അതുപോലെയുള്ള ഇതൊന്നും നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളിലില്ല അത് നഗരപ്രദേശങ്ങളിലാകുമ്പോൾ അതിനനുസരിച്ച് വായുമലിനീകരണങ്ങളും മറ്റും ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖം വരാനും മറ്റും ഇത് കാരണമാകാറുണ്ട് അപ്പോൾ അതൊക്കെ ശുചിത്ത്വം തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ അപ്പോൾ ഇത് ഗ്രാമപ്രദേശങ്ങളാണെങ്കിലും നഗരപ്രദേശങ്ങളാണെങ്കിലും നന്നായി വൃത്തിയായി സൂക്ഷിക്കുക രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുക